ഹലോ അന്നപൂർണ ഭോജനാലയം അല്ലേ എൻ്റെ പേര് ഹരികൃഷ്ണൻ ഞാനെൻ്റെ ഇഷ്ട ഭക്ഷണമായ പുട്ടും കടലയും ഓർഡർ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഓൺലൈൻ ഓപ്ഷൻ പേയ്മെൻ്റ് ഓപ്ഷൻ മാത്രമാണ് അവൈലബിൾ എന്ന് ഞാൻ നോക്കിയതാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ആയിരുന്നു കാരണം എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് പൈസ ഇല്ലായിരുന്നു കയ്യിലാണെങ്കിൽ കാശുമുണ്ട് പിന്നീട് ഞാൻ കുറെ ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു ബുദ്ധി തോന്നിയത് നിങ്ങളെ കാര്യങ്ങൾ നേരിട്ട് വിളിച്ച് ഹോട്ടൽ ഉടമയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ എന്ന് കാരണം ഈ പ്രദേശത്ത് കൂടുതൽ ആൾക്കാരും ക്യാഷ് ഓൺ ഡെലിവറി ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കൂടാതെ എനിക്കെൻ്റെ ഓർഡർ റദ്ദാക്കേണ്ടതായി തീരുമാനിക്കേണ്ടി വന്നിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ നിങ്ങൾ എൻ്റെ ഈ ഒരു റിക്വസ്റ്റ് താഴ്മയായി സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം